പെട്രോളിൻ്റെ വില വർദ്ധനവ് അത്യാവശ്യം എല്ലാ ബൈക്കുകാരേയും റൈഡേഴ്സിനേയും നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട് ബൈക്കിംഗ് ആ ഒരു രംഗത്ത് ഇറങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് അത് എന്താ പറയുക ആ ഒരു ജോലി ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അങ്ങനത്തെ രീതിക്കല്ല അവർ അതൊരു പേഷനോട് കൂടി ഇറങ്ങുന്ന ആൾക്കാരാണ് അധികവും അപ്പോൾ അവർ അതിൻ്റെ അതിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക സന്തോഷവും കാര്യങ്ങളും ഇപ്പോൾ കുറേ ആൾക്കാർ ഈ വർക്കും ജോലിയും അവരുടെ പ്രഷറും കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ട് കുറച്ച് റിലേക്സേഷൻ കിട്ടാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും മെയ്നായിട്ട് എല്ലാവരും ഇങ്ങനത്തെ ഈ ബൈക്കിംഗ് രംഗത്തേക്ക് ഇറങ്ങുന്നുണ്ടാവുക അപ്പോൾ ആ അതിൽ അത്യാവശ്യം മിക്കവാറും എല്ലാവർക്കും നല്ല സി സി കൂടിയ ബൈക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നു പറയുമ്പോൾ മെയ്നായിട്ട് എക്കോണമി ഒരു മുപ്പത്ത് മുപ്പത്തഞ്ചൊക്കെയിരിക്കും മെയ്നായിട്ട് കിട്ടുകയുള്ളു അപ്പോൾ ആ സമയത്ത് ഈ പെട്രോളിൻ്റെ വിലയും കൂടണ സമയത്ത് അവർ ബൈക്കിംഗ് രംഗത്ത് ട്രാവലിങ്ങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി മെയ്നായിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ടാവുക അപ്പോൾ അവർ എന്താ പറയുക അവർക്കിതും ഒരു ബർഡനായിട്ട് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നാറുള്ളത് ഇപ്പോൾ എൻ്റെ കാര്യം നോക്കുകയാണെന്നു പറയുമ്പോൾ കാലങ്ങളായിട്ട് വർക്കിങ്ങ് പണി ചെയ്യണ അങ്ങനുള്ള ആളൊന്നും അല്ല എന്നാലും ബൈക്കിംഗ് രംഗത്ത് നോക്കുകയാണെന്നു പറയുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഈ ടെൻഷനും കാര്യങ്ങളും കോളേജ് സ്ട്രെസും അങ്ങനത്തെ സമയത്ത് നമുക്ക് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കും ആ സമയത്ത് ഈ എന്താ പറയുക ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ ഇപ്പോഴത്തെ ടെക്നോളോജികൾ വച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ധനം എത്ര ഏത് ഇന്ധനമായാലും അത് ഉപയോഗിക്കുമ്പോൾ അല്ലെ ഹാനികരമായിട്ടുള്ള മാക്സിമം ഒരു തൊണ്ണൂറ് ശതമാനവും ഈ ഇന്ധനം കത്തിക്കുമ്പോൾ പുകയും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇപ്പോഴത്തെ ടെക്നോളജി വച്ചിട്ട് നമുക്കത് മാക്സിമം അതിൻ്റെ പൊലൂഷൻ്റെ റേറ്റ് കമ്മിയാക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ സെറ്റപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് മെയ്നായിട്ടും പുതിയ വണ്ടികളിലും കാര്യങ്ങളൊക്കെ വരുന്നത് പഴയ വണ്ടികളിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ച് എന്താ പറയുക ബുദ്ധിമുട്ട് വരുകയുള്ളൂ പുതിയ വണ്ടികളിൽ നമ്മുടെ മിഷൻ റേറ്റ് പൊലൂഷൻ്റെ മിഷൻ റേറ്റ് കമ്മിയാക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ പഴയ വണ്ടികളിലും അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ധന ഉപയോഗം കൊണ്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും